ഹലോ ആ ഞങ്ങൾ ഇവിടെ പഴം വാങ്ങിക്കാൻ വന്നതാണേ ഇവിടെ പഴങ്ങൾക്ക് വില എത്രയാണ് എങ്ങനെയാണ് വില ആ എനിക്ക് വേണ്ടത് ആ എനിക്ക് ജാക്ക്ഫ്രൂട്ടും മാംഗോയും ബനാനയും പിന്നെ പപ്പായ എല്ലാം ഒരു കിലോ വെച്ചാണ് വേണ്ടത് ആ എനിക്ക് നല്ല മധുരം ഉള്ള അതാണ് വേണ്ടത് മധുരം ഉള്ള ജാക്ക്ഫ്രൂട്ട് ആണ് ആ മധുരം കൂടിയതാണ് വേണ്ടത് ആ എനിക്ക് അത് അത് എനിക്ക് കൂഴയാണ് ഇഷ്ടം അപ്പം അത് മതി കാണുമോ അവിടെ ഒരു കിലോ ആണ് ആ ഓക്കെ പിന്നെ പഴം നല്ല മധുരം കൂടിയ പഴം പഴം ഏതൊക്കെ പഴം ഉണ്ട് ആ ആ ഞാലിപ്പൂവന്റെ വില എത്രയാണ് ഞാലിപ്പൂവന്റെ വില എത്രയാണ് മുപ്പത് നാൽപ്പത് ആ ഓക്കെ അപ്പം ആ വേറെ ഏതൊക്കെ പഴങ്ങൾ ഉണ്ട് ആ ആ അതെ ഓ പഴം ബനാന ആ തന്നെ അല്ലേ അപ്പം ഇതിൽ മധുരം കൂടിയതും ചെറു ചെറിയ പഴം ഉണ്ടോ മധുരം കൂടിയ ചെറിയ പഴം ആ ഉണ്ടല്ലേ അപ്പം എനിക്ക് അത് മതിയേ പിന്നെ പപ്പായ എങ്ങനെയാണ് ആ പഴം ഒരു കിലോ മതി പിന്നെ ബെന മറ്റേ പപ്പായ എത്രയാണ് പപ്പായ ഒരു കിലോ എത്രയാണ് നൂറ്റി അമ്പത് രൂപ ആ അപ്പം ആ ചുമന്ന പപ്പായ ഉണ്ടോ ആ ഉണ്ടല്ലേ അതിൽ കുരു കാണുമോ കുരു ഇല്ലാത്തത് ഉണ്ടോ ആ ആ അപ്പം അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല കുരു ഉഉള്ളതാണെങ്കിലും സീൻ ഇല്ല അപ്പോഴത്തേക്ക് പിന്നെ മറ്റേ ചക്ക പറ മറ്റേ മാംഗോ മാംഗോ അതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മാംഗോ ഉണ്ട് വലുത് ഉണ്ടോ വലിയ മാംഗോ ഉണ്ടോ ഉം ഉം ആ പിന്നെ ആ ആ ഓക്കെ അതിൽ മധുരം ഉള്ളത് ഏതാണ് വലുതാണോ ചെറുതാണോ ആ കോട്ടുകട മാങ്ങ ഉണ്ടോ അതൊന്നും വേണ്ട കോട്ടുകട മാങ്ങ ഉണ്ടോ അത് എങ്ങനെയാണ് മ നല്ല റേറ്റ് ആണോ എത്രയാവും കിലോ നൂറ്റമ്പത് അല്ലേ അപ്പം ആഫ്രിക്കൻ അതാണെങ്കിലോ ആ ഓക്കെ ഓക്കെ അപ്പം അത് വില കൂടുതൽ ആണ് അപ്പം അത് കഴിക്കാൻ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ നല്ല മധുരം ആണോ കളർ ഏതാണ് മ മഞ്ഞ കളർ തന്നെയാണോ അതെ അല്ലേ മഞ്ഞ കളർ ആണോ അതോ വേറെ വല്ല കളറും ആണോ ആ ഹാ ആ അപ്പം ഓക്കേ ഇപ്പം ഇതെല്ലാം കൂടെ എത്ര രൂപയാവും മൊത്തത്തിൽ ആ ഓക്കെ രണ്ടായിരം അല്ലേ അപ്പോൾ ഞാൻ എന്റെ കയ്യിലിപ്പം പൈസയില്ല ഞാൻ ഗൂഗിൾ പേ അയച്ച് തന്നാൽ മതിയോ അപ്പോഴത്തേക്ക് അതിന്റെ ക്യു ആർ കോഡ് എവിടെ ഉണ്ട് അവിടെ ഉണ്ടല്ലേ അപ്പോഴത്തേക്ക് സാധനം എല്ലാം എടുക്ക് ഞാൻ അപ്പം പോയി പൈസ അടച്ചിട്ട് വരാമേ സാധനം എല്ലാം എടുത്ത അവിടെ കൊണ്ടുപോവാം ഓക്കെ ശരി എന്നാൽ